കുടുംബക്കാരുമായിട്ട് സമയം ചെലവിടാൻ വേണ്ടിയിട്ട് എല്ലാ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അടുക്കളയിൽ ഉള്ള സംസാരം എന്നു പറയുന്നത് എല്ലാവരും കൂടിച്ചേർന്നിട്ടുള്ള ഭക്ഷണം പാകംചെയ്യലും പിന്നെ സംസാരമെല്ലാം എന്താണ് അവരുമായിട്ടുള്ള സമയം സ്പെൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സഹായിക്കാറുണ്ട്